ഞാനീ അടുത്തായിട്ട് ആമസോണിന്ന് ഒരു ഹെഡ്സെറ്റ് വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്റെ ബ്രെതറ് വാങ്ങിയിട്ട് അവൻ്റെ കൈയിൽന്ന് യൂസ് ചെയ്തതിന് ശേഷം എനിക്കത്രേയും ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഓർഡറ് ചെയ്തത് ഞാൻ പൊതുവേ ഓൺലൈൻൽ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊന്നും ഷോപ്പ് ചെയ്യാറില്ല അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിയാതെ കൊണ്ടാണ് എന്താന്ന് അറിയില്ല എനിക്കത് ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും അങ്ങനെ ഓൺലൈൻല് വാങ്ങാനെനിക്ക് താല്പര്യമില്ല പക്ഷേ ഈ സാധനം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി നല്ല സാധനംന്നവൻ പറയുവേം ചെയ്തു അങ്ങനെ ഞാനിത് വാങ്ങിയതാണ് ഒരു സൂപ്പറ് ഹെഡ്സെറ്റാണ് നല്ല സൗണ്ട് ക്ളാരിറ്റി നല്ല പാക്കിങ്ങ് നല്ല കളറ് മൊത്തത്തിൽ നല്ല പ്രൊഡക്റ്റ് ഇത് ഇതുവരെ വാങ്ങിക്കാണ്ട് വെച്ചത് വലിയ മിസ്റ്റേക്കായിപ്പോയി എന്നാലും മൊത്തത്തിൽ പറയാന്ന് വെച്ചാൽ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് ആർക്കു വേണമെങ്കിലും ഞാനിനി ഉറപ്പായിട്ടും ധൈര്യമായിട്ട് വാങ്ങിച്ചോന്ന് പറഞ്ഞിട്ട് കൊടുക്കും അത്രേം നല്ല പ്രൊഡക്റ്റാണിത്